ഞാൻ നൃത്ത മത്സരത്തിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ ഒക്കെ ആണ് കേട്ടോ കൂടുതലും പഠിച്ച അതായത് ഡാൻസിനൊക്കെ പഠിച്ചത് ഞാൻ മേ മെയിൻ ആയിട്ട് ഡാൻസ് പഠിക്കാനായിട്ടൊന്നും പോയിട്ടില്ല നമുക്ക് ഈ കലോത്സവം കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് സ്കൂളിൽ തന്നെ അതായത് ഡാൻസ് മാസ്റ്റർ പിന്നെ വിക്രം എന്നായിരുന്നു അയാളുടെ പേര് വിക്രം എന്ന് പറഞ്ഞ ഡാൻസ് മാസ്റ്റർ വരുമായിരുന്നു അപ്പം ആ ഡാൻസ് മാസ്റ്ററാണ് നമ്മളെ ഡാൻസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറ് അത്യാവശ്യം അതായത് നല്ലവണ്ണം അപ്പം നമ്മൾ കളിക്കുന്നവരൊക്കെ കൂട്ടിയിട്ട് കളിപ്പിക്കും പിന്നെ അതുമായിട്ട് അത് സ്കൂൾ കലോത്സവത്തിന് നമ്മൾ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ആർക്കാണെന്ന് വെച്ചാൽ അത് നോക്കി നമ്മളെ ചെ ഉപജില്ല ജില്ലാ സംസ്ഥാനം അങ്ങനെ കൊണ്ടു പോകും ഞാൻ സംസ്ഥാനം വരെ പോയിട്ടുണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് പിന്നെ നാഷണൽ ലെവൽ പിന്നെ അതിൻ്റെ അപ്പുറം ഞാൻ പോയിട്ടില്ല കാരണമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ കൈയിൽ നല്ല പൈസ വേണം അപ്പോൾ വീട്ടിൽ വലിയ സാമ്പത്തികം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മത്സരത്തിന് അതായത് സ്റ്റേറ്റ് മത്സരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ തന്നെയായിരുന്നു നടന്നു കൊണ്ടിരുന്നത് അപ്പം അതിനുവരെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല